നമ്മൾ പഴയ ഭക്ഷണത്തിൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഉലുവ കഞ്ഞി ഉലുവ കഞ്ഞി ഉണ്ടാക്കുന്നത് കർക്കിടക മാസത്തിലാണ് നമ്മൾ ഉലുവ കഞ്ഞി ഉണ്ടാക്കുന്നത് ഉലുവ നല്ല ജീരകം ചെറിയ ഉള്ളി നെയ്യ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഗന്ധകശാല അരി അല്ലെങ്കിൽ പിന്നെ ഇത് ചെറുപയർ അതൊക്കെ ഇട്ട് ഉലുവ കഞ്ഞി ഏഴ് ദിവസം നമ്മൾ കർക്കിടക മാസത്തിൽ നമ്മൾ കഴിക്കും അത് ഉണ്ടാക്കുന്ന രീതി നല്ലവണ്ണം ഉലുവ വെള്ളത്തിൽ ഇട്ടുവെച്ച് കുതിർത്തി വയ്ക്കണം അത് കഴിഞ്ഞിട്ട് അരി ഇട്ടതിന് ശേഷം തേങ്ങ തേങ്ങ നല്ലോണം തേങ്ങയും ചെറിയ ചെറിയ ഉള്ളിയും നല്ല ജീരകവും നന്നായിട്ട് ഒന്നു ഒതുക്കി ഇട്ടിട്ട് ഉലുവയും ചെറുപയറും വെന്തതിന് ശേഷം അരിയും വെന്തതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മൾ കുടിക്കും അതാണ് ഉലുവ കഞ്ഞി